അ ഹലോ ആരാണ് ആ ആ

ആ എന്താണ് ആ എൻ്റെ മോളേ എൻ്റെ മോളേ പ്രായം എനിക്ക് അറിയില്ല ഇത് ചേട്ടൻ അല്ല ഒരു ചേച്ചിയാണ് ഞാൻ റിയൽ എസ്റ്റേറ്റ്കാരി തന്നാ പക്ഷേ ഒരു ചേച്ചിയാണ് ശബ്ദം ശബ്ദം ആ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായില്ലേ ആ ആ അപ്പോൾ പറഞ്ഞോ പറഞ്ഞോ ആ എവിടെ

ആ എ ആ നമുക്ക് എത്ര സെൻറ് സ്ഥലം എത്ര സെൻറ് സ്ഥലമാണ് നമുക്ക് വേണ്ടത് അഞ്ച് സെൻറ് ബഡ്ജറ്റ് എന്താണ് ബഡ്ജറ്റ് എന്താണ് ബഡ്ജറ്റ് എത്ര അഞ്ച് സെൻറിന് അഞ്ച് സെൻറിന് അപ്പോൾ ഒരു അപ്പോൾ ഒരു ആറ് ആറ് ലക്ഷം ഒരു സെൻറിന് വീഴുന്നത് ആയാലും കുഴപ്പം ഇല്ല അല്ലേ ആറിന് ഇടയ്ക്ക് അപ്പോൾ ആറഞ്ച് മുപ്പത് ആറഞ്ച് മു ആ അതുകൊണ്ട് തത്തമ്പള്ളി എന്നുള്ള പ്രദേശത്തെ കുറിച്ച് അറിയാമല്ലോ ഇവിടെ ആറ് തൊട്ട് പതിനഞ്ച് വരെ സെൻറിന് ഇത് ഉള്ളതുണ്ട് പല വെറൈറ്റി ഇപ്പോൾ രണ്ട് സെ രണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്കുള്ളത് ഇവിടെ കിടപ്പുണ്ട് പക്ഷേ അത് ഏരിയ പിടിക്കുമോ എന്ന് അറിയില്ല ഇത്തിരി വെള്ളം കയറുന്നതല്ല ഉണക്ക് സമയത്ത് രണ്ടുമൂന്ന് ദിവസം ഒരു ചതുപ്പ് പ്രദേശമാണെന്നേ ഉള്ളൂ ഇത്തിരി പൊക്കിയാൽ പുര വയ്ക്കാം അത് രണ്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടും കിട്ടും കിട്ടും ആ അപ്പോൾ പോട്ടെ ആ ആ അപ്പം പോട്ടെ മുപ്പത് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പം ഇല്ല അത് ലൊക്കേഷൻ അത് ഏത് ലൊക്കേഷൻ അത് എൻ്റെ കയ്യിൽ ഉണ്ട് ആ ആ വഴിയുണ്ട് വഴിയുണ്ട് ആറിനൊക്കെ ആറിനൊ ഈ ബഡ്ജറ്റ് ഈ ബ

ആ ആ അത് അയ്യോ അത് തെറ്റിദ്ധാരണ ആണ് മുനിസിപ്പാലിറ്റിയിൽ ഇനി ഇപ്പോൾ കംപ്ളെയിൻറ് മാറും മറ്റേ കമ്മീഷൻ ചെയ്തിട്ടുണ്ട് അതെ എനി ഇപ്പം പ്രശ്നം ഉണ്ടാകില്ല വെള്ളത്തിൻ്റെ അത് അത് ഒരു വിഷയം ആണ് അപ്പോൾ നിയമം അത് കുഴപ്പമില്ല അതിപ്പം ആ റെഡി ക്യാഷ് റെഡി ക്യാഷ് ഉണ്ടോ അതോ റെഡി ക്യാഷ് ഉണ്ടോ അതോ ലോൺ വല്ല ഇതെടുക്കാൻ ആണല്ലേ ആ ആ ആ അപ്പോൾ ന്നാ മ ആ അപ്പോൾ നമുക്ക് കുഴപ്പമില്ല അതിൻറെ ആ പേപ്പറിൽ അവരുടെ ആധാരത്തിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ കറ കളക്റ്റ് ചെയ്തോളാം നിങ്ങൾ സ്ഥലം കാണിക്കാം നിങ്ങളുടെ സമയം അനുസരിച്ചേ ഏത് സമയത്താണ് നിങ്ങൾക്ക് വരാൻ പറ്റുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ കോൾ ചെയ്താൽ മതി ഞാൻ ആ സമയത്ത് വന്നോളാം ഏട്ടൻ അല്ല എന്ന് ഞാൻ പറഞ്ഞു ചേച്ചി ആ ആ ആ ആ ആ നമുക്ക് തമ്മിൽ അറിയാവുന്നതാണ് അപ്പാ നിങ്ങൾ നമുക്ക് തമ്മിൽ അറിയാം കണ്ടുകഴിഞ്ഞാൽ അറിയുള്ളൂ നിങ്ങൾ വല്ലവരോടും നമ്പർ മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു മനസ്സിലായോ ആ ആ ആ ആ ആ അപ്പോൾ പെൺകൊച്ച് ഞാനൊരു ഞാനൊരു പൊതുപ്രവർത്തക ആയതുകൊണ്ടാണ് ആ ചേട്ടൻ അല്ല ചേച്ചിയാണിത് അതൊരു പൊതുപ്രവർത്തക കൂടി ആയതുകൊണ്ട് അങ്ങനെ നമ്പർ കിട്ടിയതാണ് ഓക്കെ സമയം പറഞ്ഞാൽ മതി കേട്ടോ ശരി എന്നാൽ ഓക്കെ ആ ആ ആ ഏത് വേണമെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ സൗകര്യം ഈ പറഞ്ഞ റെറ്റിനൊക്കെ ഉണ്ട് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നോക്കുക കേട്ടോ പറഞ്ഞാൽ മതി എന്നെ വിളി ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ഫ്രീ ആവും അന്നേരം വിളിച്ചിട്ട് വന്നാൽ മതി ശരി ആ ആ ശരി ശരി ആ ആ ശരി ശരി എന്നാൽ ഓക്കെ ഓക്കെ ആ